എൻ്റെ ഏത് വിശേഷങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ കുടുംബക്കാർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാണ് ഭക്ഷണം പാകം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്നത് വിരുന്നുകാരായി വരുന്ന എൻ്റെ സഹോദരങ്ങളും എൻ്റെ ചേടത്തിമാരും എല്ലാവരും ഒരുമിച്ച് അടുക്കളയിൽ കയറി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ എന്നെ സഹായിക്കാറുണ്ട് ഞങ്ങളുടെ കുട്ടനാട്ടുകാരായത് കൊണ്ട് അപ്പവും താറാവും ആണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് പിന്നെ അതു കഴിഞ്ഞ് നമ്മൾ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ചോറും മറ്റ് കറികളും എല്ലാം ആയിരിക്കും ഉണ്ടാക്കുന്നത് അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൂടുതലായിട്ട് സഹായിക്കും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കൾ അവരും അന്നത്തെ ദിവസം അവരും അടുക്കളയിൽ കയറി അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്തു തരും വളരെ നല്ല ഭഷണം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും